നമ്മുടെ നാട്ടിലെ ഏറ്റവും വിഷകരമായൊരു സംഭവമാണ് ഇപ്പോള് പ്ലാസ്റ്റിക്ക് ഉപയോഗം പ്ലാസ്റ്റിക്കുപയോഗം ഇത് കൂടുതലായി വരികയാണ് അതുമൂലം പലപല അസുഖങ്ങളള്ക്കും ശാരീരികമായും നമ്മളെ ബാധിക്കുകയാണ് ഈ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം അത് ചില കത്തിക്കുന്നത് മൂലം കുടൽ ക്യാന്സര് രോഗം ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അത് മലിനീകരണം ആ പ്ലാസ്റ്റിക്ക് ഒരു പ്രത്യേകമായ രീതിയിൽ നിര്മ്മാർജ്ജനം ചെയ്യാനുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഒരുക്കണം എങ്കില് മാത്രമേ നമ്മൾക്ക് ഇതില് നിന്നൊരു മോചനം ഉണ്ടാവുകയുള്ളു അതുപോലെതന്നെ കൂടുതലും ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം പ്ലാസ്റ്റിക്ക് നമ്മുടെ ഭൂമുഖത്തു നിന്ന് തന്നെ തൂത്തു കളയുക എന്നതുള്ളതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലേറ്റവും വേണ്ടത് ഇതുമൂലം നമ്മുടെ ഭാവി ജീവിതത്തിൽ നമ്മുടെ കുട്ടികള്ക്ക് നമ്മുടെ തലമുറകള്ക്ക് ഇതൊരു ബാധകമായി മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പ്ലാസ്റ്റിക്ക് എത്രയും എത്രത്തോളം നിരോധിക്കാമോ അത്രത്തോളം നിരോധിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും നല്ലത്